ആ കൗസല്യ മൊബൈൽ റിപ്പയർ ഷോപ്പ് അല്ലേ ആ ഞാൻ ആ ഒരു കംപ്ലൈൻറ് ആയിട്ട് വന്നതാണ് എൻ്റെ ഫോണിലൊരു ചെറിയ കംപ്ലൈൻറ് ഉണ്ടായിരുന്നു അതിൻ്റെ പെട്ടന്ന് ഓവർ ഹീറ്റ് ആവും പിന്നെ പെട്ടെന്ന് ഇന്നലെ ഒരു ആറ് മണിയായപ്പോൾ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് വർഷത്തോളം ആയി

റെഡ്മി നോട്ട് ടെൻ പ്രോ ഈ ബാറ്ററിക്ക് എത്ര രൂപയാവും

വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ ഓ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ഓ അപ്പം മാക്സ് അപ്പം മിനിമം ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറയുന്നതാണീ ഈ ആയിരത്തി അഞ്ഞൂറ് ഏന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരുന്നത് ഓക്കെ അപ്പം ബാറ്ററിക്ക് എത്ര ഗ്യാരന് എത്ര വർഷത്തെ വാറൻറി ഉണ്ടാവും മൂന്ന് മാസത്തെ ഗ്യാരൻറിയോ ഓക്കെ ശരി ശരി ഓ മൂന്ന് വർഷത്തെ ഗ്യാരൻറി അപ്പോൾ ഈ ബാറ്ററിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇത് പുതിയ മോഡൽ ആണോ അയ്യോ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് റെഡ്മി നോട്ട് ടെൻ പ്രോയ്ക്ക് മുമ്പ് കുറച്ച് പ്രശ്ങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ന്യൂസിലൊക്കെ കണ്ടായിരുന്നുവല്ലോ ബാറ്ററിയുടെ പ്രശ്നങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ റെഡ്മിയുടെ കമ്പനി തന്നെ പുതിയ മോഡൽ ബാറ്ററി ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ മോഡൽ ആണോ കിട്ടുന്നത് ഓക്കെ അപ്പം ഞാൻ നാളെ തന്നെ വരാം താങ്ക് യൂ